ഒരു കിണറ്റിൽ നിന്ന് നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് എടുക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് മോട്ടർ ഒരു സെട്രിഫ്യൂഗൽ പമ്പ് പിന്നെ ഒരു പൈപ്പ് അതായത് കിണറിൻ്റെ ആഴത്തിൽ നിന്ന് നമുക്ക് വെളളം എടുക്കാൻ അറ്റം വരെ എത്തുന്ന ഒരു പൈപ്പും കൂടി ആണ് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൈപ്പാണ് നമുക്ക് ആവശ്യമുള്ളത് ഇതിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇലക്ട്രിക് മോട്ടറും പമ്പുമായിട്ട് കണക്ട് ചെയ്യുക പമ്പിൽ നിന്ന് പൈപ്പ് നമ്മൾ കണക്ട് ചെയ്തു ആ പൈപ് നമ്മൾ കിണറ്റിലോട്ട് ഇറക്കി എന്നാൽ അതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് പമ്പ് നമുക്ക് പ്രൈമിങ് ചെയ്യണം കാരണം പ്രൈമിങ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽനിന്ന് വെള്ളം പമ്പ് ചെയ്ത് എടുക്കാൻ സാധിക്കുള്ളൂ അതിന് അത് കാരണം പ്രൈമിങ് എന്താണെന്ന് വെച്ചാൽ അതിലത്തെ എയർ ബബിൾസിനെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് പമ്പ് എയർ ബബിൾസിനെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് പ്രൈമിങ് പ്രൈമിങ് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് അതിന് നമുക്ക് വേണ്ടത് വെള്ളം ഫില്ല് ചെയ്യുക എന്നതാണ്

ആ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബാക്കി കാര്യങ്ങൾക്ക് പമ്പ് ഉപയോഗിക്കുന്നത് ഇതിൽ യൂസ് ചെയ്യുന്ന മോട്ടർ എന്ന് പറഞ്ഞാൽ വൺ എച് പീയുടെ അതായതൊരു മോട്ടറായിരിക്കും യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിൽ ഉപയോഗിക്കുന്നത് സെട്രിഫ്യൂഗൽ പമ്പാണ് അതിൻ്റെ വർക്കിംഗ് നമുക്ക് അറിയുന്നതു പോലെ ഒരു സെൻട്രിഫ്യുഗൽ റൊട്ടേഷൻ സെൻട്രിഫ്യുഗൽ ഫോഴ്സ് ബെയ്സ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് ഒരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ് പമ്പുമാണ് അങ്ങനെയുള്ള ഒരു പമ്പാണ് നമ്മൾ അതിനായി ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് മോട്ടറുകളിൽ പമ്പ് കണക്ട് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ മോട്ടർ ഓൺ ചെയ്തിട്ട് ഏ എല ഇലക്ട്രിക് കരണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് അതോ അതിന്റോടൊപ്പം നമ്മൾ അതായത് ഇതിനെ ഒരു എനർജി കൺവെർഷൻ ആണ് ഇതിൽ നടക്കുന്നത് ഇലക്ട്രിക് സെട്രിഫ്യൂഗൽ പമ്പിൽ അതായത് സെട്രിഫ്യൂഗൽ എനർജി അതിനെ നമ്മൾ ഹൈഡ്രോളിക് എനർജി ആയിട്ട് കൺവെർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതാണതിൻ്റെ ബേസിക് പ്രൊസീജ്യർ